ഞാൻ അങ്ങനെ പ്രകൃതി രമണീയതയുള്ളൊരു സ്ഥലത്തു പോയത് എന്ന് വച്ചാൽ അത് ഊട്ടിലാണ് ഊട്ടിയിലെ പ്രധാനമായ പൂന്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രകൃതി രമണീയത വളരെ ഉളവാക്കുന്നതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് എല്ലാവരും ഊട്ടിയിലേക്ക് പോയിട്ടുള്ളത് ഊട്ടിയിൽ എൻ്റെ ഒരു ചെറിയച്ഛൻ അവിടെ ആർമിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശ പ്രകാരമാണ് എല്ലാവരും ഊട്ടിയിലേക്ക് പോയത് അവിടെയുള്ള ഫ്ലവർ ഷോകളും ഗാർഡൻസും പൈൻ മരങ്ങളുടെ കാടും എല്ലാം തന്നെ നമുക്ക് പ്രകൃതി രമണീയത വളരേ ഉളവാക്കുന്നതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് പിന്നെ ഊട്ടിയിലേക്ക് പോകുന്ന ചുരങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ വളരെ നല്ലതാണ് നമുക്ക് നല്ലൊരു യാത്രാ അനുഭവം തന്നെ തരുന്നതാണ്

നിലംമ്പൂർ ഊടല്ലൂർ വഴിയാണ് ഊട്ടിലേക്ക് പോകാറുള്ളത് ഊടല്ലൂരുള്ള പൈൻ മരക്കാടുകളും ഒക്കെ തന്നെ വളരെ അതിവിശിഷ്ടവും അടിപൊളിയുമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ആദ്യം പ്രകൃതി രമണീയത ആസ്വദിക്കാൻ അങ്ങോട്ട് പോയത് പിന്നെ അവിടെ എക്കോ പോയിന്റ് എന്നു പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് വളരെ അടിപൊളിയാണ് നമ്മളുടെ എക്കോ തിരിച്ചടിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെയുള്ള കുറേ സൂയ്സൈഡ് പോയിന്റ് കൊടേക്കനാൽ അവിടെ അടുത്തുള്ള അവിടെയും അടിപൊളിയാണ് സൂയ്സൈഡ് പോയന്റുകൾ ആണെങ്കിൽ പോലും വളരെ വളരെ മനോഹരമുള്ള കുറെ സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്തു എന്നു ചോദിച്ചാൽ പ്രധാനമായും എൻജോയ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഡയറി കുറുപ്പുകളും ഞാൻ അവിടെനിന്ന് എഴുതിയെടുത്തിട്ടുണ്ട് സ്കൂളിലേക്കുള്ള ഒരു പ്രോജക്ടിന് വേണ്ടിയായിരുന്നു അത്